എൻ്റെ വീട് ഒരു ഗ്രാമ പ്രദേശമായത് കൊണ്ട് തന്നെ എൻ്റെ വീടിന് ചുറ്റും കുറെ ക എ സ്ഥലങ്ങളുണ്ട് അത് കൊണ്ട് തന്നെ വീടിന് ചുറ്റും ഞാൻ നോക്കും പിന്നെ വീട് നടുഭാഗത്തിനെ അങ്ങനെ ചുറ്റും എനിക്ക് പറമ്പാണ് പിന്നെ വീണ്ടും എനിക്ക് വേറെ പറമ്പുകളുള്ള കാരണം അവിടെ കൂടുതലായിട്ട് അതിർ വരമ്പുകള് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേണം അപ്പൊ അവിടെ അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല പൂന്തോട്ടം അങ്ങനെയൊന്നും പറ്റില്ല പൂന്തോട്ടം എന്നല്ല പച്ചക്കറിയായാലും നമുക്ക് അവിടെ പറ്റില്ല കാരണം വെയിലും അതിനുള്ള തടസങ്ങളും ആയത് കാരണം ബാക്കി ആ ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കൂടുതലായിട്ട് ചെയ്യാറുള്ളത് വീട്ടിലുള്ള കാരണം മാത്രം അമ്മയെനിക്ക് കൂടുതലും കൂടുതൽ എനിക്ക് എൾ എളുപ്പമതാണ് അതു വീട്ടില് എന്തെങ്കിലും കാര്യം കഴിഞ്ഞ് വീട്ടില് വെറുതെ ഇരിക്കുവാണെൽ എനിക്ക് ഓടിപ്പോയി ചെയ്യാം പക്ഷേ പറമ്പിലാകുമ്പോൾ പിന്നെ കുറച്ചും കൂടെ നടക്കാനുണ്ട് അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് എല്ലാം ചെയ്യാറുള്ളത് വീടിൻ്റെ മുറ്റത്തായാലും വീടിൻ്റെ സൈഡിലൊക്കെയായാലും ഇങ്ങനെ ചെയ്യും അങ്ങനെ അങ്ങനെ പ്ലാസ്റ്റിക് ബാഗിലൊന്നും അല്ല എൻ്റെ കൃഷി എന്ന് പറയുന്നത് മണ്ണിൽ തന്നെയാണ് അന്നേരം വേരോടിക്കഴിഞ്ഞാലാണ് പ് ചെടികള് വളരാൻ കൂടുതൽ ഇതായിരിക്കുകയുള്ളു അപ്പോൾ എത്രത്തോളം ഏ ചെടിക്ക് വേരോടിക്കാൻ പറ്റുന്നുവോ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മളത് ചെയ്യണം അപ്പം അതുകൊണ്ട് ചെടികള് പെട്ടെന്ന് തന്നെ വളരും അപ്പോൾ അത് കാരണം വളരെയിതാണ് പിന്നെ വീട് മുറ്റത്താകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും അവര് കൂടുലായിട്ടും അവര് പരിപാലിക്കാൻ പറ്റും പെട്ടന്നിപ്പോൾ പറമ്പിലാണെങ്കിൽ പെട്ടന്നോടിയെത്താനൊന്നും ബുദ്ധിമുട്ടാണ് അത്കൊണ്ട് വീട്ടിൽ തന്നെയാണ് ഞങ്ങള് ഞാൻ മിക്കതും ചെയ്യാറുള്ളത് വീട്ടില് അതാകുമ്പോൾ എൻ്റെ അനാസാൻ സാൻ സന്ധ്യത്തിലല്ലെങ്കിലും മമ്മിക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ വീട്ടിലാണ് മിക്കതും ചെയ്യാറുള്ളത് വീട്ടിലാകുമ്പോൾ കൂടുതതലായിട്ട് എനിക്ക് വളങ്ങളായാലും പിന്നെ കാര്യങ്ങള് പറഞ്ഞ് തരാൻ മമ്മിയുണ്ട് മമ്മിയുള്ളത് കാരണം എനിക്ക് വീട്ടിലാണ് ചെയ്യാൻ കൂടുതലിഷ്ടം അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് ചെയ്യാറുള്ളത് പൂന്തോട്ട പരിപാലനം ഒക്കെ ഞാനവിടെ തന്നെയാണ് ഏ പിന്നെ മുറ്റത്തും ചെയ്യും അങ്ങനെ ചെയിത്തോ അങ്ങനെ ചെടി തോട്ടം എന്റേതായിട്ട് ചെടിത്തോട്ടം എന്നില്ല എവിടെ കിട്ടുന്നെ സ്ഥലം അവിടെ ഞാനത് ചെയ്യുന്നു അതാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് ചെടിയും പൂന്തോട്ടവും ആ പച്ചക്കറിയുമങ്ങനെ ചെയ്യും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ കൊറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും മരം നട്ടു പിടിപ്പിച്ചുണ്ടായി വളർന്നോണ്ടിക്കയാണ് അതിപ്പഴും അതിൻ്റെ വളരണ സാഹചര്യത്തിലെന്നെയാണ് ഇനിയൊരു കുറെ വർഷങ്ങൾക്ക് ശേഷാണ് ആ മരം വളരുക ഉള്ളു ആ അങ്ങനെയാണ് ഇപ്പം ഞാൻ കൂടലായിട്ടിപ്പോൾ വീട്ടിൽ തന്നെയാണ് ചെയ്യാറുള്ളത് വീടിൻ്റെ മുറ്റത്താണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്